അയ്യോ ഇതെന്തു പറ്റി ടാപ്പിലെ വെള്ളം തീര്ന്നല്ലോ ഞാനാണേ കുളിക്കാന് കയറിയല്ലോ എന്തുപറ്റി എന്താണു കാര്യമെന്നറിയത്തില്ലല്ലോ ടാങ്കിലെ വെള്ളം തീര്ന്നതാണോ അതിന് എന്റെ പൈപ്പിലെന്തേലും പ്രശ്നമാണോ ഒന്നും അറിയില്ല അ ഏതായാലും നോക്കാം അമ്മേ ഇതെന്തു പറ്റിയെന്നറിയാമോ ഈ പൈപ്പിലെനിക്ക് വെള്ളം കിട്ടുന്നില്ലലോ ഞാന് കുളിക്കാനായിട്ട് കയറിയതായിരുന്നു എന്താണെന്നറിയില്ല വെള്ളം കിട്ടുന്നില്ല എന്തുപറ്റി ആ വെള്ളം തീര്ന്നതായിരിക്കും ഒന്നും അറിയില്ല അയ്യോ ഇവിടെ പൈപ്പ് പൊട്ടി കിടക്കുകയാണല്ലോ ഇനിയെന്ത് ചെയ്യും ആ ഏതായാലും പൈപ്പ് നന്നാക്കാനുള്ള ആള്ക്കാരെ വിളിക്കാം എനിക്ക് ഹലോ ഞാന് ഞങ്ങളുടെ പൈപ്പ് ഞങ്ങളുടെ പൈപ്പ് കണക്ഷന്റെത് പൊട്ടിക്കിടക്കുവാണ് അപ്പോള് നിങ്ങളങ്ങ് വന്ന് എത്രയും പെട്ടന്നൊന്ന് ശരിയാക്കിത്തരണം ഓ സമാധാനമായി ഏതായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൈപ്പ് കണക്ഷനെവിടെയോ പോയതാരുന്നു പൊട്ടിപ്പോയതായിരുന്നു എന്ത് പറ്റിയോ ഒത്തിരി വെള്ളവും നഷ്ടപ്പെട്ടു ജലം പാഴാക്കരുതെന്നാണ് പക്ഷെ എന്ത് ചെയ്യാനാണ്